നമ്മുടെ ഗ്രാമത്തിൽ മെയിനായിട്ട് ജലത്തിൻ്റെ ലഭ്യതക്കും വേണ്ടീട്ട് ഉള്ളത് മലമ്പുഴ കനാലാണ് മലമ്പുഴ കനാല് പാലക്കാട് ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും മിക്കവാറും ആ എല്ലാ സ്ഥലങ്ങളിലേക്കും മലമ്പുഴ ഡാമിൽനിന്നാണ് വെള്ളം വിടണത് മലമ്പുഴയിലത്തെ മെയിൻ കനാല് വഴി എല്ലാ അവിടേയ്ക്കും മിക്കവാറും എല്ലാ പ്രദേശത്തേക്കും നമ്മുടെ വെള്ളം എത്തുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കുവാണേൽ അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ആലിനി ആ ജലസംഭരണി എന്ന് പറഞ്ഞാൽ ജലം ഉൾക്കൊള്ളാവുന്ന അത്രയും സ്ഥലം ഉള്ളത് നമ്മുടെ മലമ്പുഴ ഡാമിനാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നോക്കുവാണെന്നു പറഞ്ഞാൽ ഇതിലിപ്പോൾ നമുക്ക് ജനുവരി മാസങ്ങളില് നവംബർ മാസങ്ങളിൽ പിന്നെ വേനൽക്കാലത്ത് രണ്ട് പ്രാവശ്യം വിടും വെള്ളം അങ്ങനെയൊക്കെ ആയിട്ടാണ് വെള്ളം വിടണത് നമുക്കെപ്പോഴാണോ കൃഷിക്ക് നമ്മൾ പാലക്കാട് മെയിനായിട്ട് നെൽ കൃഷി ആയതുകൊണ്ട് കൃഷിക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എല്ലാ കൊല്ലവും അതിനു വേണ്ട ചിലവും കാര്യങ്ങളും കൃത്യമായിട്ട് വിടും അപ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പാടശേഖരങ്ങളിലേയ്ക്ക് എത്തിക്കാൻ വേണ്ടീട്ട് മെയിൻ കനാലിൽ നിന്ന് ചേർന്നിട്ട് തന്നെ ചില സ്ഥല അതായത് എവിടേയ്ക്കാണോ മെയിൻ കനാൽ ഒരു സ്ഥലത്തേക്കിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നുണ്ടാവും എല്ലാ ഭാഗത്തേക്കുള്ളത് അതിനോട് ചേർന്നിട്ടുള്ള ചെറിയ ചെറിയ കനാലുകൾ ഉണ്ടാവും പിന്നെ ഏറ്റവും അവസാനം ചെറിയ ചെറിയ ഓവുകള് പോലെ ഉണ്ടാവും അപ്പോൾ ലാസ്റ്റ് എത്തണമെങ്കിൽ ചെറിയ ചെറിയ ഓവുകളും കാര്യങ്ങളും എത്താതെ നേരെ പാടത്തേയ്ക്കു പോവുക ഇതില് നമുക്കെന്താ പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടു വരുന്നത് ഈ സംഭവം ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും നമ്മള് വൃത്തി ആക്കണം ഓരോ പ്രാവശ്യം വെള്ളം വിട്ടു കഴിയുമ്പോഴും ഇതിനുള്ളിൽ പുല്ല് വരിക മണ്ണ് അടിഞ്ഞു കൂടുക വേസ്റ്റ് അടിഞ്ഞു കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങള് വരും അപ്പോൾ എന്താകും ഇത് കനാല് അല്ലെങ്കിൽ ചാലൊക്കെ ബ്ലോക്ക് ആവും ആ സമയത്ത് നമുക്ക് പിന്നെ ഇതു മുഴുവൻ വൃത്തിയാ അടുത്ത പ്രാവശ്യം വെള്ളം വിടുമ്പോഴേക്കും ഇതു മുഴുവൻ വൃത്തിയാക്കണം ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളം നമ്മുടെ കനാലിൻ്റെ അടിവശം എന്ന് പറയണത് മണ്ണാണ് മ അതായത് സൈഡ് മാത്രം അതിൻ്റെ നമുക്ക് കനാലിൻ്റെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മണ്ണായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം തന്നെ ഉള്ളിടത്തോളം കാലം അവിടെ പെട്ടെന്ന് വേറെ ചെടികള് പാഴ്ചെടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും പാഴ് ചെടികള് പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകും അപ്പോൾ എന്ത് ചെയ്യും ആൾക്കാര് ആൾക്കാര് അവിടെ കൊണ്ടു വന്ന് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും അപ്പോൾ അതും കൂടെ ആവുമ്പോൾ പിറ്റേ പ്രാവശ്യം വെള്ളം വരുമ്പോൾ അത് ബ്ലോക്ക് ആവും അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ ഈ ചെക്ക് ഡാമിൻ്റെ അവിടെ പോയിട്ട് ഇതൊക്കെ അടയും ഈ ചെളിയും കാര്യങ്ങള് ആയിരിക്കും ബ്ലോക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഓരോ ചെപ്പ് ചെക്ക് ഡാമിൻ്റെയോ ഇപ്പോൾ കനാലിൻ്റെ ഓപ്പനിംഗ്സിലൊക്കെ പോയി അടയും അപ്പോൾ അവിടെ വെള്ളം പോവാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അങ്ങനെ അതാണിപ്പോൾ നമ്മൾ അതിൻ്റെ ഇതെല്ലം അതിനു നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നു പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നഷ്ടപ്പെടാണ്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ വെള്ളം വേറെ അതായത് വേസ്റ്റും കാര്യങ്ങളൊക്കെ പുല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ അത് നമുക്കൊരു നല്ല ഒരു വഴി ആയിട്ടാണ് എനിക്ക് തോന്നണത്